ഹലോ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഫോട്ടോഗ്രാഫിയിൽ ഫോട്ടോഗ്രാഫിയെ കുറിച്ചിട്ടുള്ളതാണ് ഫോട്ടോഗ്രഫി ശില്പശാലകളിൽ ഞാൻ ഒരു പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട് ഫോട്ടോ വച്ചതിൽ വച്ചു നടന്ന ഫോട്ടോഗ്രഫി ശില്പശാലയിലാണ് പങ്കെടുത്തിട്ടുള്ളത് ഇന്നേവരെ നടത്തിയിട്ടില്ല ഫോട്ടോഗ്രഫി ശില്പശാലകൾ നടത്തിയിട്ടില്ല പക്ഷെ പങ്കെടുത്തിട്ടുണ്ട് വലിയൊരു അനുഭവമായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസായിരുന്നു പല രീതിയിലുള്ള ഫോട്ടോഗ്രഫികൾ എനിക്കവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്താ പറയുക നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു ഫോട്ടോഗ്രഫിയിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കാൻ പറ്റും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന പല സംഭവങ്ങളും ഇന്ത്യയിൽ എന്തായിക്കോട്ടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇന്ത്യയിലെ തന്നെയല്ല നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്തു ചെറിയ സംഭവങ്ങൾ നടന്നാൽപ്പോലും അത് ഫോട്ടോഗോഫ് ഫോട്ടോഗ്രഫിയിലൂടെ അവതരിപ്പിക്കുന്ന ആളുകളുണ്ട് മെയിനായിട്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് ലഹരിയെന്ന് പറയണത് ലഹരിക്ക് അടിമപ്പെട്ട ഒരുപാട് യുവാക്കളും യുവതികളൊക്കെ ഉണ്ട് അവിടെ ഓരോ ജീവിതം ചിലപ്പോൾ ആ ജീവിതം മോശമാവുന്നതുകൊണ്ടായിരിക്കും ഓരോ യുവാക്കളെ അല്ലെങ്കിൽ യുവതികൾ ലഹരിക്ക് അടിമപ്പെടുന്നത് അത് ഫോട്ടോഗ്രാഫിയിലൂടെ ഫോട്ടോഗ്രഫി ശില്പികളിലൂടെ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയിലൂടെയൊക്കെ നമുക്ക് എന്തു ചെയ്തിട്ടുണ്ട് പല ആളുകളും വിവരിച്ച് തന്നിട്ടുണ്ട് വിവരിക്കുന്നുമുണ്ട് അങ്ങനത്തെയൊരു അനുഭവമായിരുന്നു എനിക്ക് അതിൽ പങ്കെടുത്തപ്പോൾ കിട്ടിയതെന്നു പറയണത് അങ്ങനത്തെയൊരു അനുഭവങ്ങളായിരുന്നു അതുപോലെത്തന്നെ ഓരോ സംഭവങ്ങളും ഫോട്ടോഗ്രാഫിയിലൂടെ ആ ഫോട്ടോഗ്രഫി എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ശില്പം ഉണ്ടാക്കി അതില്ല പുറകെ നടക്കുന്ന മെയിനായിട്ടുള്ള സംഭവങ്ങളെന്നു പറയണത് നമ്മുടെ ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലൊക്ക നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചിട്ടാണ് ആ ഫോട്ടോഗ്രാഫിയെന്ന് പറയണത് ഓരോ കലാകാരന്മാരുടെ ഒരു കഴിവ് അവരുടെ ഒരു അതൊക്കെ നോക്കുമ്പോൾ ഒരു ഫോട്ടോഗ്രാഫിയിലേക്ക് ഫോട്ടോഗ്രഫി ചെയ്യാനായിട്ടൊരു താല്പര്യം ഉണ്ടാവാറുണ്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അവരുടെ ആ ഒരു കഴിവ് നമ്മൾ പ്രശംസിക്കേണ്ടതാണ് ഒരുപാടുതവണ തന്നെ പ്രശംസിക്കേണ്ടതാണ് പിന്നെയെന്നു പറയണത് ഫോട്ടോഗ്രാഫിയുടെ ടെക്നിക്സൊന്നും നമ്മൾ എനിക്ക് കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിച്ചിട്ടില്ല ഈ പങ്കെടുത്തതിൽ വച്ച് ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞിരിക്കുന്നത്